വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനായിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട് കാരണം നമ്മുടെ ഇവിടെ ആവശ്യത്തിന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അഭാവമാണത് അതായത് നമ്മുടെ സ്കൂളുകളിൽനിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളെ മുഴുവനായി ഉൾക്കൊള്ളുവാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാണെലും ആണ് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠനം നടത്തുവാൻ വിദ്യാർത്ഥികൾ പ്രേരിതമാകുന്നത് കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ പോയി പഠിക്കുവാനും പിള്ളേർ സന്നദ്ധമാകുന്നതിൻ്റെ കാരണം മറ്റ് രാജ്യങ്ങളിൽ ജോലിയോടൊപ്പം വിദ്യാഭ്യാസവും നടത്താം എന്നതിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് വരുമാനം ലഭിക്കുകയും അത് ആ വരുമാനം ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുകയും ജോലി സമ്പാദിക്കുകയും ചെയ്യാനുള്ള സാഹചര്യം മറ്റ് രാജ്യങ്ങളിൽ ഉള്ളതുകൊണ്ടാണ് കുട്ടികൾ അതിനായി തയ്യാറാവുന്നത്